ജീവിതത്തിൽ കലയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് കലാകാരന്മാരൊക്കെ കലകൾ കൊണ്ട് വളരെ വളരെ സംതൃപ്തരാണ് ഇപ്പം ഉദാഹരണമായിട്ട് ശോഭനയൊക്കെ ഇതേ വിവാഹം പോലും കഴിക്കാൻ തയ്യാറാകാതെ കലയെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നാം കല കലകളിൽ പ്രധാനപ്പെട്ട കഥകളി ഓട്ടൻതുള്ളൽ ഇതുപോലെ ഉള്ളതൊക്കെ തുഞ്ചത്ത് എഴുത്തച്ഛൻ അതുപോലെയുള്ള മഹാകവികളൊക്കെ ഇതിന് വളരെ പ്രാധാന്യം കൊടുത്ത് എഴുതുകയും പറയുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സമൂഹ ഈ സായിപ്പന്മാരൊക്കെ വന്ന് നമ്മുടെ കഥകളികളും ഓട്ടൻ തുള്ളലുകളും ഒക്കെ കണ്ട് സന്തോഷിച്ച് അവർ നമുക്ക് ധനസഹായം ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകുന്നത് വെളിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലയാണ് കഥകളി കഥകളി അർത്ഥവത്തായ ഒരു അറിയാവുന്ന ആൾക്കാർക്ക് അർത്ഥവത്തായ ഒരു കലയായിട്ടാണ് നാം കേരളീയർ കണ്ടു വരുന്നത് കല യിൽ കഥകളിയാണ് ഏറ്റവും നല്ലത് ഡാൻസും പാട്ടും എല്ലാം നല്ല നല്ല കലകളാണ് എനിക്ക് ഇതിൽ വലിയ ഏതിൽ ഒന്നിലും എനിക്ക് താത്പര്യമില്ല ഇതിനൊക്കെ ഒരു കഴിവുകളാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്